പണ്ടെടുത്ത ഫോട്ടോകൾടെ പ്രിൻറ്റുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പുതിയ ഡിജിറ്റൽ രീതിയിലുള്ള ഫോട്ടോകളും പഴയ ഫോട്ടോകളും തമ്മിൽ എന്താണ് കരുതുന്നത് എന്നു ചോദിച്ച് കഴിഞ്ഞാൽ പഴയ ഫോട്ടോ നമുക്ക് വിലപിടിപ്പുള്ളത് ആയിരുന്നു അത് നമുക്ക് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തികം കൂടുതൽ വേണമായിരുന്നു അതിൻ്റെ ഇന്നത്തെ പോലെയുള്ള ഒരു സൗന്ദര്യം അതിനില്ല എങ്കിലും നമ്മുടെ പ്രായത്തിൻ്റെ ആ കുഞ്ഞുനാളിലെ ഉള്ള അത്ര പഴക്കം ഉള്ള ഫോട്ടോകൾ കാണുമ്പം അതുണർത്തുന്ന ഒരു വികാരം അല്ലെങ്കിൽ ആ മനസ്സിന് ഉണ്ടാകുന്നൊരു സന്തോഷം വളരെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്

കുളിർമയേകുന്ന പടങ്ങൾ കണ്ടാൽ ചിലപ്പം തിരിച്ചറിയാൻ പോലും വിഷമമാണ് കുഞ്ഞിലത്തെ ഫോട്ടോകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണോ എൻ്റെ ഫോട്ടോ കണ്ടാൽ ഞാനാണെന്നോ എൻ്റെ കൂട്ടുകാരെ കണ്ടാൽ അവരാണെന്നോ തിരിച്ചറിയാൻ അത്ര ക്ലാരിറ്റി കുറവ് എന്ന് പറഞ്ഞാൽ അത്ര ഒറിജിനാലിറ്റി കുറവാണെങ്കിൽ പോലും അത് ഒരു ഒരു പ്രത്യേക സന്തോഷം നൽകുന്നതായിരുന്നു എന്നാൽ ഇന്ന് എന്ന് ഫോട്ടോ എന്ന് പറയുമ്പം ചിലവ് വളരെ കുറവാണ് മൊബൈൽ ഫോണിലു ഒക്കെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും അത് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ എളുപ്പമാണ് നശിച്ച് പോകാതിരിക്കാൻ എളുപ്പമാണ് സൂക്ഷിക്കുന്നതിന് വളരെ ചിലവ് കുറവുണ്ട് എപ്പം വേണം എങ്കിലും അത് കാണാം നിങ്ങൾക്ക് ആ അതിന് നല്ല ക്ലാരിറ്റിയൊണ്ട് നല്ല പെർഫെക്ഷനൊണ്ട് അത് എഡിറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഇന്നത്തെ ഫോട്ടോയ്ക്കൊണ്ട് പക്ഷേ പണ്ടത്തെ ആ ഫോട്ടോഗ്രാഫിയെ പോലൊരു വൈകാരികമായ ഒരടുപ്പം അതിൻ്റെ ആ ഇപ്പോഴും ആ ഒരു കുഞ്ഞു ഒരു ഫോട്ടോടെ തുണ്ട് കണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂല്യം ഒരു സന്തോഷം പഴയ ത്തെ കുുറിച്ചുള്ള ഒരോർമ്മ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇല്ല എന്നത് സത്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് സൗന്ദര്യം എന്നില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ് അപ്പം പഴമയ്ക്ക് അതിൻ്റെതായ മൂല്യം ഉണ്ടെങ്കിലും ഇന്നത്തെ പോലെ ഉള്ള തെളിച്ചവും ഒറിജിനാലിറ്റിയും ഒന്നും ഇല്ല രണ്ടും രണ്ട് ആണ് പഴമയെ നമ്മൾ പഴമയായിട്ട് കാണുകയും ഇന്നത്തെ അതിനെ ഇന്നതായിട്ട് കാണുകയും ചെയ്യണം പക്ഷേ നമുക്ക് ഒരു വൈകാര്യമായ ബന്ധം ഉണ്ട് എന്നത് കാര്യം സത്യമാണ്